എന്റെ പ്രദേശത്തുണ്ടാകുന്ന കൂടുതല് കുറ്റകൃത്യങ്ങള് എന്ന് പറയുന്നത് കളവ് കളവ് ചെയ്യുന്നതും അതുപോലെ ഇപ്പോൾ കളവു ചെയ്യാന് വേണ്ടി വീട്ടില് കയറുമ്പോള് വീട്ടിലുള്ളവർ ഇപ്പോൾ ആരെങ്കിലും കണ്ടു പോക്കിയാൽ അവരെ കൊല്ലാന് വരെ മടിക്കാത്ത ഓരോ കാലഘട്ടമാണ് ഇന്ന് വന്നു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പീഡനം കൂടി വരികയാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പീഡനത്തിനൊക്കെ പിന്നെ കൂടി വരുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ആ ആണുങ്ങള്ക്കൊക്കെ പൊതുവേ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അല്ല അവരുടെ ലഹരി ലഹരി ഉപയോഗം കൂടുന്നത് കൊണ്ടുതന്നെയാണ് ഇത്തരം ഒരു സ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെത്തന്നെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കാരണം ആണ് ഇപ്പം നമ്മൾക്കിടയില് തന്നെ ഒരു രണ്ടു വര്ഷങ്ങള്ക്ക് മുൻപേ തൊഴിലില്ലാ ദാരിദ്ര്യം അഥവാ ഭക്ഷണം കിട്ടാതെ മോഷ്ടിക്കുകയും അതിനു അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സന്ദര്ഭം നമ്മൾക്കിടയില് ഉണ്ടായിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ദാരിദ്ര്യം തന്നെയാണ് തൊഴിലില്ലായ്മയിലൂടെ നമുക്ക് പൈസ ഇല്ലാതാവുകയും അല്ലെങ്കില് നമ്മൾക്ക് ശമ്പളം ഇല്ലാതാകുകയും പൈസ കൈയില് ഇല്ലാതെ വരികയും ദാരിദ്യം ഉണ്ടാകുകയും അതിനു വേണ്ടി അപ്പോൾ നമുക്ക് ദരിദ്ര അപ്പോൾ ഭക്ഷണം വരെ കിട്ടാത്ത അവസ്ഥയിൽ കളവു ചെയ്യേണ്ടാതായിട്ടു വരുന്നുണ്ട് ഇത് നമ്മള് കണ്ടറിയേണ്ട ഒന്നാണ് ഇപ്പോൾ കളവു ചെയ്യുന്നത് എന്ന് പറയുന്നത് അവര്ക്ക് മറ്റുള്ള തൊഴിലില്ലാത്തത് കൊണ്ടു തന്നെ അവര്ക്ക് കളവ് ചെയ്തെങ്കിലും ജീവിക്കണം എന്നുള്ളൊരു മനസ്ഥിതി വരികയാണ് അത് നമ്മള് തന്നെ ഇല്ലാതാക്കണം ഇപ്പോൾ കുറ്റകൃത്യങ്ങള് എന്ന് പറയുമ്പം കളവ് അതുമാത്രമല്ല പിടിച്ചുപറി അതൊക്കെ തന്നെയുണ്ട് ഇപ്പം അവർ ഇപ്പം ഇപ്പം സ്വര്ണ്ണം ഇട്ടുകൊണ്ടൊന്നും ആള്ക്കാർക്ക് റോഡിലൂടെ മെയിന് റോഡിലൂടെ തന്നെ നടക്കാന് പറ്റാത്ത അവസ്ഥയാണ് പിടിച്ചുവലിക്കാർ ഉള്ളത് കൊണ്ടുതന്നെ ഇത് തൊഴിലില്ലായ്മയും ദരിദ്രവും അതുപോലെ ലഹരിക്കടിമപ്പെട്ടവരും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ലഹരി അടിമയില്പ്പെട്ട ആള്ക്കാരുടെ കൈയില് പൈസ ഇല്ലാതെ തന്നെ ലഹരി വാങ്ങാന് പൈസ ഇല്ലാതാകുമ്പോൾ അവർ വീട്ടിലുള്ളവരെ തന്നെ അപായപ്പെടുത്തി പൈസ അല്ലെങ്കില് സ്വര്ണ്ണം കിട്ടിയ സ്വര്ണ്ണം കൊണ്ടു പോയി പൈസ ഉണ്ടാക്കി ലഹരി വാങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നു കൊണ്ടിരിക്കുന്നത്